ആ ഹലോ എൻ്റെ പേര് മിന്നുവെന്നാണ് ഇത് ഫോക്ക് ഡാൻസ് ടീച്ചറാണോ ആ ആ അരുണിമ മാഡം ആണോ ആ എൻ്റെ പേര് മിന്നു ഞാൻ തൃശ്ശൂരിൽ നിന്നാണ് വിളിക്കുന്നത് എനിക്ക് ഫോക്ക് ഡാൻസ് ഭയ്യങ്കര ഇഷ്ടമാണ് അപ്പോൾ കോമ്പറ്റീഷൻസിനൊക്കെ പോവാൻ വേണ്ടിയിട്ട് അത് പഠിക്കണം എന്ന് ആഗ്രഹം ഉണ്ട് അത് ഞാൻ ഇപ്പോൾ നയൻത്ത് സ്റ്റാൻഡേർഡിലാണ്

ആണോ ഫീസൊക്കെ എങ്ങനെയാണ് വരുന്നത്

ഇല്ല ആ അങ്ങനെ എത്രനാളെടുക്കും നമ്മളൊരു ഫുൾ പഠിച്ചെടുക്കാനായിട്ട് ആ ആ ഈ പ്രാവിശ്യത്തെ ആ അപ്പോൾ എല്ലാം ഇവിടെ നിന്നുതന്നെ ചെയ്തു തരുമല്ലേ മാഡം നന്നായി ചെയ്തു തരുമോ ആണോ ആ ഈ കോഴ്സെന്നു പറയുന്നത് ഇപ്പോൾ എനിക്ക് കോമ്പറ്റീഷൻ വരികയാണെങ്കിൽ ഇപ്പോൾ ടെൻത്ത് സ്റ്റാൻഡേർഡിലാണ് ഇത്രയും ഇപ്പോൾ കഴിഞ്ഞു അപ്പോൾ എനിക്ക് ആഗ്രഹം വന്നത് പങ്കെടുക്കണം എന്ന് ആ മാഡം തന്നെയായിരിക്കില്ലേ ക്ലാസ്സുകളൊക്കെ എടുക്കുന്നുണ്ടാവുക ആ സമയം എത്രയായിരുന്നു പറഞ്ഞത്

ആ അപ്പോൾ നമ്മൾ അപ്പോൾ ഈ സാറ്റർഡേ വരുമ്പോൾ ആ ആയിരത്തഞ്ഞൂറു രൂപ കൊണ്ടുവരണം അല്ലെ ആ പിന്നെ ഓരോ മന്ത് കഴിയുമ്പോഴാണോ നമ്മൾ പേയ്മെൻ്റ് ചെയ്യേണ്ടത്

ആ ഓക്കെ ആ ഓക്കെ ഓക്കെ

ആ കാര്യങ്ങളൊക്കെ മനസ്സിലായി മാഡം അപ്പോൾ ഈ സാറ്റർഡേ തൊട്ട് ക്ലാസ്സ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും അല്ലേ ആ ആ ആ എനിക്കതിൻ്റെ ബേസിക്സ് ഒന്നും അറിയില്ല അപ്പോൾ അതെനിക്ക് ബുദ്ധിമുട്ടായിരിക്കുമോ ഇതൊക്കെ മൊത്തം പഠിച്ചെടുക്കാൻ അ ആ ഓക്കെ മാഡം താങ്ക് യൂ